എനിക്കാകെ ഇപ്പോഴൊരു സൈക്കിള് മാത്രമേയുള്ളൂ ഞാനിപ്പോഴും സൈക്കിള് ചവിട്ടി ക്ലാസ്സില് പോകുന്നൊരു വിദ്യാര്ത്ഥിനി തന്നെയാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ സൈക്കിള് ചവിട്ടി പോവുന്നു അതൊരു എക്സസൈസുമാണ് പിന്നെ അധികം പൊലൂഷനോ മാലിന്യം അങ്ങനെ അന്തരീക്ഷം മലിനമാക്കുന്ന അങ്ങനൊരു ഇതും അതില്നിന്ന് വെണ്ണില്ല അതുകൊണ്ട് എനിക്ക് കൂടുതലും സൈക്കിള് ചവിട്ടി പോവാന് തന്നെയാണിഷ്ടം പിന്നെ സൈക്കിള് പഞ്ചറോ അങ്ങനൊക്കെ വരുമ്പോള് ബസ്സിന് പോവും അല്ലെങ്കില് സൈക്കിള് തന്നെയാണ് എനിക്കിഷ്ടം